ചിത്രരചന പോലെയുള്ള കലകൾ കുട്ടികൾ ആരംഭിക്കുന്നത് ശരിയായ വയസ്സ് അങ്ങനെ ഒന്നുമില്ല ഏത് പിള്ളേർ ഒരു രണ്ട് വയസ്സ് മുതലേ പിന്നെ വരക്കാൻ ചില പിള്ളേർക്ക് ഭയങ്കര ഇതാണ് പെൻസിലും കളർ പെൻസിൽ പിന്ന പേനയുമൊക്കെ എടുത്ത് പിന്നെ പേപ്പറൊക്കെ എടുത്ത് കുത്തി വരച്ച് അവർ വരയ്ക്കും ചില പിള്ളേർക്ക് അതിന് നല്ല വശമാണ് പിന്ന ചില പിള്ളേർക്ക് അതിനോട് വലിയ താൽപര്യമില്ല പിന്നെ പിള്ളേർക്ക് അത് കഴിവുണ്ടെന്ന് നമ്മൾ മാതാപിതാക്കന്മാർ അത് കണ്ട് മനസിലാക്കിയാൽ അവർക്ക് അതിനുള്ള പ്രോത്സാഹനം നമ്മൾ കൊടുക്കും അവർക്ക് വേണ്ട കാര്യങ്ങള് നമ്മള് ചെയ്തു കൊടുക്കും വരയ്ക്കാനുള്ള ബുക്കും അതിൻ്റെ പെൻസിലും ഇതും എല്ലാം മേടിച്ച് നമ്മൾ കൂടെ അതിനെ പ്രോത്സാഹിപ്പിച്ച് കൊടുക്കും പിന്നെ ചില പള്ളേർക്ക് അതിനോട് നല്ല ഇഷ്ടമാണ് ചില ചില കുട്ടികൾ അത് നന്നായിട്ട് ചെയ്യും വരക്കുകയും നല്ല പടം വരക്കുകയും അതിനുള്ള കഴിവും ചില കുട്ടികൾക്കുണ്ട് പിന്നെ അങ്ങനെ വരച്ച് രണ്ട് വയസ്സ് മുതലേ അത് തുടങ്ങിയാൽ വരയ്ക്കാനുള്ള ഒരു മനസ്സും കഴിവും ഉണ്ടെങ്കിലെ മുന്നോട്ട് വരും തോറും അവർക്ക് നല്ല നല്ലതായിട്ട് അവർക്ക് ചെയ്യാൻ ഒക്കും മുന്നോട്ട് ചെയ്താലെ അങ്ങനെയുള്ള കലകളിലൊക്കെ ചിത്രരചനയൊക്കെ ഇപ്പോൾ ഈ കാലത്ത് നല്ല നല്ല ഇതായിട്ടുള്ള കാര്യങ്ങളാണ് സ്കൂളിലൊക്കെ ആണെങ്കിലും ഈ ചിത്രരചനക്കൊക്കെ നല്ല പ്രോത്സാഹനമാണ് ഓരോ പിള്ളേർ ഓരോ പടങ്ങളൊക്കെ വരച്ചു കാണുമ്പോൾ നമ്മൾക്കു അതിശയം വരും അത് കണക്കുള്ള കഴിവുള്ള പിള്ളാരെ കൊണ്ട് അപ്പോൾ അവരെ നമ്മൾ നന്നായിട്ട് പ്രേത്സാഹിപ്പിക്കിക അവരെ എവിടെ വരെ നമ്മൾ എത്തിക്കാമോ അവിടം വരെ നമ്മൾ എത്തിക്കണം അതിന് നമ്മൾ മാതാപിതക്കളും മറ്റുള്ളവരും അതിൽ കൂടുതൽ നമ്മൾ അതിനെ അതിനെ നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം അതിനുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കണം അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ അവർക്കും അതിയായ താൽപര്യം അവർക്കും നന്നായിട്ട് ചെയ്യണം ഇന്നെ ഇന്ന കണക്ക് ചെയ്യണമെന്നുള്ള ഒരു കഴിവും മനസ്സും ഉണ്ടാകും അങ്ങനെ ചെയ്താലേ നല്ല ഒരു ചിത്രകാരനാകാനൊക്കൂ ഇപ്പോൾ ചിത്രമൊക്കെ വരച്ച് ഇപ്പോൾ നല്ല ചിത്രമൊക്കെ വരച്ച് കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് പൊ നമ്മൾ പ്രായമായാലും അങ്ങനെ ചിത്രമൊക്കെ വരച്ചാൽ നമ്മൾക്ക് നല്ല ഒരു എന്ന പൈസ ഉണ്ടാക്കാനും നമ്മ്ൾക്ക് ഒക്കും എല്ലാ കാര്യങ്ങൾക്കും എന്നാൽ അത് ചെയ്യാനൊക്കും അതുപോലെ തന്നെ പിള്ളാർ അതിന് നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോഴും അവിടുത്തെ സാറന്മാരും അതിന് വേണ്ട പ്രോത്സാഹനങ്ങൾ അവർക്ക് കൊടുക്കണം അവരെ നമ്മൾ അവരെ ചിത്രരചനയെ വരപ്പിച്ചു പഠിപ്പിച്ചു അവരെ വര പിഠിപ്പിച്ചത് അവർക്ക് മുന്നോട്ട് നല്ല ഒരു മഴ ഓരോ ഇതിലോട്ടും പോകാനും ഭാവിയിൽ അവർക്ക് ഒരു നല്ല ഇതിൽ പോ ചേരാനുമുള്ള ഇത് കിട്ടും പിന്നെ